നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഹാരം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആഹാരം കാരണം നമ്മളെ വീട്ടിലെ എല്ലാം പിന്നെ നമ്മുക്ക് മക്കൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കാരണം ഓരോ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കൾക്കും മൂന്ന് രീതിയിലുള്ള ഭക്ഷണങ്ങളാരിക്കും ഇഷ്ടം ഒരാൾക്ക് ചിലപ്പം ചോറും കറികളും ഒരാൾക്ക് മീനും ചോറും ഒരാൾക്ക് ചിലപ്പം ദോശ ആയിരിക്കും ഇഷ്ടം ഒരാൾക്ക് കഞ്ഞിയായിരിക്കും ഇഷ്ടം അങ്ങനെ മക്കൾ മൂന്നാളും മൂന്ന് വിധത്തിലായിരിക്കും പക്ഷേ നമ്മൾ മക്കളെ ഹെൽത്ത് നമുക്ക് മക്കളെ എന്താ പറയുക മക്കൾക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ പിന്നെ ശരീരത്തിൽ രോഗമൊന്നും രോഗ പ്രതിരോധശേഷി കാരണം ഇപ്പോഴത്തെക്കാലത്ത് മഴക്കാലമാണ് കാരണം മഴക്കാലത്ത് കുട്ടികൾക്ക് പെട്ടന്ന് അസുഖങ്ങളൊക്കെ വരാം അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം അവർക്കിഷ്ടപ്പെട്ട ആഹാരം കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പച്ചക്കറികളാണ് മക്കൾക്ക് കഴിക്കാൻ കൊടുക്കേണ്ടത് കാരണം ചീര മുരിങ്ങയില പിന്നെ നമ്മൾക്കിവിടെ കിട്ടുന്ന പല സൈസ് ചീരകൾ കിട്ടും അതൊക്കെ നന്നായിട്ട് ഉപ്പേരി വച്ച് നല്ലോണം മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ മീൻ ഏറ്റവും കൂടുതലും പിന്നെ മീൻ എന്നു പറഞ്ഞാൽ മത്തിയിലാണ് ഏറ്റവും കൂടുതൽ എല്ലാ ഇതും അടങ്ങിട്ടുള്ളത് മത്തി മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് നമ്മൾക്ക് പിന്നെ മത്തി മത്തിയെന്നു പറഞ്ഞ സാധനം മറ്റു മീനിനെ അപേക്ഷിച്ച് മറ്റു മീനുകളൊക്കെ വലിയൊരു സൈസ് അയിലയെന്നു പറഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് അയില മത്തി എപ്പോഴും നമുക്ക് നല്ല ഒരു എന്താ പറയുക ഹെൽത്തിനു നല്ലതാണ് അതുപോലെത്തന്നെ പച്ചക്കറികൾ കൂടുതലും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചക്കറികളുടെ കൂടുതൽ ഉപയോഗിച്ച് മറ്റ് മത്സ്യ മാംസങ്ങളൊക്കെ കുറച്ച് ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം അതുപോലെത്തന്നെ വീട്ടുകളിൽ ഉണ്ടാക്കുന്ന ചീര മത്തൻ വെള്ളരിക്ക പിന്നെ നമ്മൾ എന്താ പറയുക വീട്ടുവളപ്പിൽ നമ്മൾ പച്ചക്കറികൾ ഉണ്ടാക്കില്ല വഴുതനങ്ങ അതൊക്കെ കൂടുതൽ നമ്മൾ ആഹാരത്തിൽ കലർത്തി അവർക്ക് ചോറിന് കറികളാക്കി ഉപയോഗിക്കാവുന്നതാണ്